എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ട സന്ദർഭമായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ളത് അതൊരു ഒരു അത് ഒരു കടമ്പയായിരുന്നു എന്ത് ചെയ്യണം എന്നുള്ളത് കാരണം നമുക്ക് എന്ത് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുവാണെങ്കിൽ ഇനി എന്തിലോട്ട് പോകണം അതൊരു വലിയ ടാസ്ക് ആയിരുന്നു എനിക്ക് എന്തിലോട്ട് പോകണം എന്ന് എനിക്ക് ആണെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടൂള്ള എന്തിനെങ്കിലും പോയി ചേരണം എന്നൊക്കെയായിരുന്നു താല്പര്യം പക്ഷേ അതിന് പോയി ചേർന്നാൽ ഇന്ന ജോലി കിട്ടുമോ അല്ലെങ്കിൽ അത് വലിയ പാടാകുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ വീട്ടുകാർക്ക് ഉള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലോട്ട് ഞാൻ ബയോളജിയാണ് പഠിച്ചത് അപ്പം മെഡി മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാൻ ആയിട്ടൊരു ഇത് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ടെക്നിക്കൽ ഫീൽഡിലോട്ട് പോകണം എന്നായിരുന്നു എൻ്റെ താല്പര്യം പക്ഷേ എനിക്ക് ഒരു പേടിയായിരുന്നു നമ്മൾ അതിന് പോയി കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സന്ദർഭങ്ങളിൽ എൻ്റെ എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിലോട്ട് പോകണം എന്ന് അവർ പറഞ്ഞെങ്കിലും അവർ എന്നോട് പറഞ്ഞത് നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഫീൽഡിലോട്ട് നിനക്ക് പോകാൻ അങ്ങനെ നിന്നാൽ മതി എന്നാണ് എൻ്റെ വീട്ടുകാർ പറഞ്ഞത് ഞാൻ എനിക്ക് ടെക്നിക്കൽ പരമായിട്ടാണ് ഇപ്പം എന്താ പറയാ ഇപ്പം എൻ്റെ വീട്ടുകാർ പറഞ്ഞ് നീ ടെക്നിക്കൽ പരമായിട്ട് അതിന് പോയാൽ മതി അതിനുള്ളത് കടമ്പകൾ നമുക്ക് എടുക്കാം ഏഹ് അതിനുള്ള തീരുമാനം നീ എടുത്തോ ബാക്കി നമുക്ക് നോക്കാം നമുക്ക് പൈസ ചിലവാക്കുന്നത് ഒന്നും നോക്കണ്ട നീ എടുക്കുന്ന തീരുമാനത്തോട് കൂടെ യോജിച്ച് നിൽക്കും എന്നാണ് എൻ്റെ എൻ്റെ വീട്ടുകാർ പറഞ്ഞത് എന്നെ ഉപദേശിച്ചത് അങ്ങനെയാണ് ഉപദേശങ്ങൾ നല്ല കോഴ്സ് ആയിരിക്കണം എന്നും പറഞ്ഞു നീ എടുക്കുന്നത് ഒരിക്കലും നിനക്ക് നിനക്ക് വല്ല മേലാത്തത് ഒന്നും എടുക്കരുത് മീൻസ് നിനക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് ഉള്ളതൊന്നും എടുക്കരുത് നിനക്ക് താല്പര്യമുള്ള നിനക്ക് പഠിക്കാൻ കഴിയാവുന്ന നിനക്ക് എന്തിനെയാണോ പഠിക്കാൻ പറ്റുന്ന ആ ഒരു കോഴ്സ് നീ എടുത്താൽ മതിയെന്നാണ് എൻ്റെ വീട്ടുകാർ എന്നോട് പറഞ്ഞത് അവർ എൻ്റെ കൂടെ എനിക്ക് മാക്സിമം സപ്പോർട്ട് ഇട്ട് എൻ്റെ കൂടെ തന്നെ നിക്കുവായിരുന്നു ഞാൻ എടുക്കുന്ന കോഴ്സ് അവരോട് പറഞ്ഞ് അവർ പറഞ്ഞു നല്ല കോഴ്സാണ് എൻ്റെ അച്ഛൻ ആണെങ്കിലും അതൊക്കെ ഒരൊടുത്ത് പോയി അന്വേഷിച്ച് അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ചെയ്തു ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ട സന്ദർഭം അതായിരുന്നു വളരെ വളരെ നന്നായിട്ട് അത് മുന്നോട്ട് പോയി എൻ്റെ വീട്ടുകാർ എൻ്റെ കൂടെ നിന്നു ഞാൻ പറയുന്നത് അവർക്ക് മനസിലായി അവർ എന്നോട് സമ്മതിച്ച് എൻ്റെ കൂടെ നിന്ന് വളരെ ഇതായിട്ട് എൻ്റെ കൂടെ നിൽക്കുവായിരുന്നു അതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാനുള്ള സന്ദർഭം എന്ന് പറയുന്നത് പിന്നെ ഞാൻ വേറെ ഒരു സന്ദർഭം എടുക്കാൻ തീരുമാനം ഉപയോഗിക്കുന്നത് എൻ്റെ മാമനാണ് മാമൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് എൻ്റെ മാമനിൽ നിന്ന് കൂടുതൽ ഉപദേശങ്ങൾ ഞാൻ സ്വീകരിക്കാറുണ്ട് കാരണം അവർക്കൊക്കെ അറിവുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ഇങ്ങോട്ടാണ് ഇങ്ങനെ പോളി ടെക്നിക് പഠിക്കാനാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മാമനാണ് മാമനോട് ചോദിച്ചു ഏത് കോഴ്സാണ് നല്ലത് എന്ന് ചോദിച്ചപ്പോൾ അവർ അതിൻ്റെതായ അറിവുകൾ എനിക്ക് പകർന്നു തന്നു ഇന്ന കോഴ്സാണ് നല്ലത് ഇന്ന കോഴ്സ് പഠിച്ചാൽ നല്ല ഇതാകും എന്നൊക്കെ എനിക്ക് വളരെ വേണ്ട രീതിയിൽ അവർ അന്വേഷിച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്നു എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് പറഞ്ഞു തന്നതാണ് പക്ഷേ അവർ പറഞ്ഞതിലൂടെ എനിക്കാ തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചു അതിലൂടെ ഞാൻ വിജയിച്ച് മുന്നേറുകയാണ് ഇപ്പം കാരണം ഞാൻ അവർ പറഞ്ഞ രീതിക്ക് എനിക്കും താല്പര്യമുള്ള അവരും പറഞ്ഞ രീതിയിലുള്ള കോഴ്സ് എനിക്ക് എടുക്കാൻ പറ്റി ഡിപ്ലോമ അത് എനിക്ക് പഠിച്ച് എടുക്കാനും എനിക്ക് താല്പര്യമുള്ള കോഴ്സായത് കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ പഠിക്കാനും പഠിച്ച് നല്ല ഇത് എത്താനും എനിക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ എൻ്റെ സിസ്റ്ററിനോട് ഞാൻ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് അവർക്ക് അതിൻ്റെതായ രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കാരണം അവരൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പോയി മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി അറിവുള്ളത് കൊണ്ട് അവർ എനിക്ക് അതിനെ കുറിച്ച് പറഞ്ഞു തന്നു അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തതിൽ ഒരു തീരുമാനത്തിൽ എൻ്റെ കൂടെ നിന്നതും ഞാൻ ചോദിച്ചതും സന്ദർഭം ഇതൊക്കെയാണ്